എൻ്റെ കയ്യിൽ ഒരു ഡിജിറ്റൽ ക്യാമറ ഉണ്ട് ഡി എസ് എൽ ആറിൻ്റെ കാനോനിൻ്റെ ഒരു ക്യാമറ അത് ഉപയോഗിച്ചാണ് ഞാൻ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് അതായത് യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അവിടെ ചെന്ന് അതായത് അവിടുത്തെ ഭംഗി എൻ്റെ ക്യാമറകളിൽ ഞാൻ പകർത്താറുണ്ട് അതുമാത്രമല്ല ഓരോ സുന്ദരമായ നിമിഷവും ഓർത്തു വയ്ക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ എൻ്റെ ക്യാമറകളിൽ പകർത്താറുണ്ട് നല്ല ക്യാമറ ആണ് ഇത് ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ആണ് ഇതിൽ കിട്ടുന്നത് ഇപ്പോൾ പല ഫോണുകളും നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് എന്നിരുന്നാൽ കൂടെ ക്യാമറയിൽ എടുക്കുന്ന പിക്ക് ഒരു പ്രത്യേകതരം ഭംഗി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിലൊരു ചെറിയ ക്യാമറ ആണെങ്കിൽ പോലും വളരെ നല്ല ലെൻസ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ചിത്രങ്ങൾ തരുന്ന ഒരു ക്യാമറ തന്നെയാണ് എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ ഇപ്പോൾ അത് വാങ്ങിയിട്ട് ഏകദേശം രണ്ടു വർഷത്തോളമായി അതിന് ഒരു കേടുപാടുമില്ല നന്നായിട്ട് തന്നെയാണ് അത് പോകുന്നത്